ഞങ്ങൾക്ക് ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് ശുദ്ധമായ വെള്ളം തന്നെയാണ് ലഭിക്കുന്നത് നേരത്തെയെന്നു വെച്ചു പറഞ്ഞാൽ ഞങ്ങൾ കിണറ്റിൽ നിന്ന് ഒക്കെ ആയിരുന്നു വെള്ളം പിടിക്കുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ ടാപ്പിൻ്റെ ഒരു സൗകര്യം വന്നത്തോടെ ഇപ്പോൾ എല്ലാ വീട്ടിലും വീട്ടുകാർക്കും ശുദ്ധമായ വെള്ളം തന്നെയാണ് ലഭിക്കുന്നത് രാവിലെയും അഞ്ച് മണി ടൂ പത്ത് മണിവരെ വെള്ളം കിട്ടാറുണ്ട് അതുപോലെതന്നെ വൈകുന്നേരം അഞ്ചെ ടൂ ഏഴുമണിവരെയൊക്കെ വെള്ളം കിട്ടാറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ വീടുകൾക്കും ലഭിക്കുന്നത്